അതെ സാർ ഒരു കോച്ചിംഗ് സെലക്ഷന് വേണ്ടി വന്ന ആണ് ഓക്കെ ഓക്കെ ആ ഓക്കെ സാർ ആ അതിന് ആ ആ

അത് സാർ ഇങ്ങനെ മന്ത്ലി ഫീസ് ഇത് എങ്ങനെ ആയിരിക്കും സാർ അതെ ഓക്കെ സാർ ഓക്കെ

ഓ ആ സാർ ആ ആ സാർ ആ ഞാന് ആ കുറച്ച് അവിടെ അടുത്ത് ഒരു കോച്ചിംഗ് സെൻ്ററിൽ കുറച്ച് പോയിട്ട് ഉണ്ടായിരുന്നു അത്യാവശ്യം ബേസിക്ക് അറിയാം പക്ഷെ കുറച്ച് ഒന്ന് സ്ട്രോംഗ് ആകാൻ ഉണ്ട് ആ സൗത്ത് ഉസ്ക്കൂള് കളിക്കാൻ ആയാണ് ഞാൻ സ്റ്റേറ്റ് ലെവല് വരെ കളിക്കാൻ പോയിട്ടുണ്ട്

അധികവും ഡിഫെൻസറ് കളിക്കുകയാണ്

ആ വീട് കുറച്ച് ദൂരത്താണ് സാർ അത് കൊല്ലം ആ ഭാഗത്ത് ആണ് ആ വരൂ അതായത് എങ്ങനെ വേറെ ഓ ഓ ഓക്കെ സാർ

ആ സാർ അപ്പം സാർ മറ്റെ സ്റ്റേയ്ക്കും അക്കോമഡേഷനും ഫുഡിനും കൂടി വേറെ ചാർജ് എത്ര വരും അതെ ആ സാർ ആ സാർ ഓക്കെ ആ ആ ഓക്കെ ആ സാർ ആ ആ കോച്ചിംഗിന് സാറ് തന്നെ ആണോ അല്ലെ കോച്ച് നോക്കണോ അതോ പേർസണലൈസ് ആയിട്ട് വേറെ സാറമ്മാര്

ഓക്കെ സാർ ആ ആ ഓ ഓ ഓ ശരി

ആ ഓക്കെ സാർ ആ അത് അല്ല മറ്റെ ഇത് ഔട്ട് ഫിറ്റ് നമ്മൾ അവിടെ പോകുമ്പം ഉള്ള ഔട്ട് ഫിറ്റ് ഉണ്ട് ബൂട്ടും കാര്യങ്ങൾ ഒക്ക ഉണ്ട് കൈയ്യിൽ ഉണ്ട് ഓക്കെ ആ സാർ ആ അത് ആ നമ്മുക്ക് ഇവിടുന്നന്നെ പ്രിൻറ്റ് വാങ്ങിക്കാ വാങ്ങിക്കാൻ പറ്റുമോ അതോ നമ്മള് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരുമോ അതെ ഓക്കെ ആ ശരി അത് നമ്മള് സാർ എന്ന് മുതല് വന്ന് തുടങ്ങണം

ഓക്കെ അത് ഡെയിലി എല്ലാ രാവിലയും ഉണ്ടാകുമോ എല്ലാ മോർണിംഗും ഉണ്ടാകുമോ അങ്ങനെ

ഓക്കെ ആ ആ

ഓക്കെ അതിന് നമ്മുക്ക് അഡ്മിഷൻ ഫീസ് എത്ര വരും സാർ ആയിരം രൂപയിൽ ഇത് ഒക്കെ ആവും ആ ശരി സാർ ഓക്കെ അപ്പം അടുത്ത ആഴ്ച്ച മുതല് അതെ അല്ലെ ആ സാർ ആ സാർ അപ്പം ഈ സ്പോൺസർ ഷിപ്പ് നമ്മുക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും അത് അല്ല നമ്മുടെ ഭാഗത്തുനിന്ന് അല്ലാതെ ഇവിടുന്ന് അങ്ങന വല്ലതും കിട്ടാന്ന് വെച്ചാൽ സാധ്യത

ഓക്കെ ആ ശരി സാർ ഓക്കെ അപ്പം അടുത്ത ആഴ്ച്ച വന്നാൽ മതിയല്ലേ ആ ശരി സാർ ഒക്കെ